ഇപ്പോൾ നമ്മള് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് കുടുതലായിട്ടും സാഹിത്യത്തിലൊക്കെയാണ് സാഹിത്യത്തില് മലയാള ഭാഷ എന്ന് പറഞ്ഞാല് ഒരു അച്ചടി ഭാഷയായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മലയാള ഭാഷയില് നമ്മള് സാഹിത്യത്തിലൊക്കെ എന്തെങ്കിലും ഒക്കെ എഴുതാനും പറയാനുമൊക്കെ ആണെങ്കില് മലയാള ഭാഷ ഉപയോഗിച്ചാൽ മാത്രമെ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളു ഇപ്പം കവിതയിലാണെങ്കിലും നമ്മള് നല്ല രീതിയിലുള്ള അച്ചടി ഭാഷയും ഇപ്പോൾ ഒരു ഒരു അർത്ഥവത്തായിട്ടുള്ള വാക്കുകള് മാത്രമെ നമുക്ക് മലയാള ഭാഷയില് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷും ഈ മലയാളവും കൂടി കലർന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് കവിതയിൽ എഴുതാൻ വേണ്ടിയിട്ടൊ നമുക്കൊന്നും സാധിക്കൂ പറയാനോ വായിക്കാനോ

ആ അപ്പം മലയാള ഭാഷ നല്ലൊരു എന്താ പറയുക ഒരു ആവിഷ്കാരമായിട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ കലകളിലാണെങ്കിലും ഇപ്പോൾ ഓരോ ഓരോ കാല കലാവിഷ്കാരങ്ങളൊക്കെയുണ്ട് അതായത് ഇപ്പോൾ ഓട്ടംതുള്ളല് കഥകളി ഈ ഇങ്ങനത്തെ ഇതിലൊക്കെ സാധാരണ കലാകാരൻമാരൊക്കെ നമ്മള് ഉപയോഗിക്കുന്നത് നല്ല രീതിയിലുള്ള അച്ചടി ഭാഷയായിട്ടുള്ള മലയാളം ആണ് ഉപയോഗിക്കുന്നത് അപ്പം നല്ല രീതിയില് അച്ചടി ഭാഷ ഉപയോഗിച്ചാൽ മാത്രമെ നമുക്ക് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ ലഭിക്കുകയുള്ളു അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്